എൻ്റെ പ്രദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയനാട് എന്നു പറയുന്ന സ്ഥലമാണ് ഇവിടെ ചരിത്ര സംബന്ധമായിട്ട് പ്രശ്നങ്ങൾ എന്നു പറയാൻ ആണെങ്കിൽ ഇപ്പോൾ വയനാടിന്റെ തന്നെ ചരിത്രം എന്നു പറഞ്ഞു കഴിഞ്ഞാൽ വയനാട് ചുരത്തിനെപ്പറ്റി പറയുമ്പോഴാണ് അപ്പോൾ ചുരത്തിൽ എന്നു പറയുമ്പോൾ ചുരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പണ്ട് ബ്രിട്ടീഷുകാർക്ക് കഴിയാത്ത സമയത്ത് അവിടെയുള്ള ഒരു ആദിവാസി യുവാവാണ് ഈ ചുരമൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാരെ സഹായിച്ചതെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇവർ ഈ വഴിയൊക്കെ കണ്ടു പിടിച്ചതിനു ശേഷം ഇത് കണ്ടുപിടിച്ച ക്രെഡിറ്റ് വേറെ ആരുടെയും കൈവശം പോവാതെ ഈ ആദിവാസിയാണ് കണ്ടുപിടിച്ചതെന്ന് അറിയാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് അയാളെ കൊന്നുകളയുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇയാൾ കൊന്നു കളഞ്ഞതിനുശേഷം ഈ വഴിയിലൂടെ പോകുന്ന ഒരോ വാഹനങ്ങളും അപകടത്തിൽ പെടുകയും തുടർന്ന് ഇവർ ഒരു നോക്കുമ്പോൾ എന്താ പറയുക ഈ ആദിവാസി യുവാവ് അയാളുടെ ആത്മാവ് ആ വഴിയെ പോകുന്ന വാഹനങ്ങളെയൊക്കെ ആക്സിഡൻ്റ് ആക്കുന്നതാണെന്നും പറഞ്ഞു കേട്ടിട്ടുണ്ട് അതിനുശേഷം ആണ് ഈ യുവാവിനെ അവിടെ ഒരു മരത്തിൽ എന്താ പറയുക ബന്ധിക്കുകയും ഈ പൂജകർമ്മങ്ങൾ ഒക്കെ പോലെ ചെയ്ത് അവരെ ബന്ധിച്ച് ഒരു മരത്തിൽ ഒരു ചങ്ങലയിട്ട് അവിടെ തളച്ചിടുകയൊക്കെ ചെയ്തതായിട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട് അതാണ് വയനാട്ടിലെ ഒരു മെയിൻ എന്താ പറയുക ചരിത്ര സംഭവമായിട്ട് ഞാൻ കേട്ടിട്ടുള്ളത്